ആവശ്യമായ എല്ലാ ദിശകളും നിർദ്ദേശങ്ങളും നൽകുന്ന ഉപദേശകരുടെയും അതുപോലെത്തന്നെ മാതൃകാ വ്യക്തികളുടെയും സ്വാധീനം എൻ്റെ എഴുത്തിലെ ഓരോ വരിയിലും പ്രതിഫലിക്കുന്നുണ്ട് ഞാൻ എഴുതുന്ന ഓരോ കൃതിയിലും അവർ നൽകിയ വെളിച്ചം കൊണ്ട് പടർന്ന് വളർന്ന ചില ആഴമുള്ള പാഠങ്ങളുണ്ട് അതിൽ പെട്ടതാണ് ഈ അധ്യാപകരുടെ സ്വാധീനം എന്നുള്ളത് അഥവാ എൻ്റെ എഴുതാനുള്ള പ്രേരണക്ക് അടിസ്ഥാനം നൽകിയവർ എൻ്റെ അധ്യാപകരാണ് അവർ എൻ്റെ എഴുത്തിലെ ആദ്യ വായനക്കാർ മാത്രമല്ല ആദ്യ വിമർശകരുമായിരുന്നു ഭാഷയുടെ സൗന്ദര്യവും താളവും ഒപ്പം ആശയങ്ങളുടെ മെഴിവ് രേഖാചിത്രങ്ങളുടെ പ്രാധാന്യം തുടങ്ങിയവയെ കുറിച്ച് ആദ്യമായി മനസ്സിലാക്കാൻ സഹായിച്ചത് അവരുടെ കുറിപ്പുകൾ വഴിയായിരുന്നു ചിലപ്പോൾ ഒരു അദ്ധ്യാപകൻ്റെ ചെറിയൊരു ഇവിടെ കൂടുതൽ തുറന്നായിരിക്കാം എന്ന അഭിപ്രായം ഞാൻ മുഴുവൻ പുസ്തകത്തിലൂടെ വീണ്ടും ചിന്തിക്കാൻ കാരണമായിട്ടുണ്ട് രണ്ടാമതായിട്ട് എഴുത്തുകാരുടെയും കവികളുടെയും മാതൃകകളാണ് എനിക്ക് ഏറ്റവും വലിയ പ്രചോദനമായി നിൽക്കുന്ന ചില എഴുത്തുകാരുണ്ട് മലയാള സാഹിത്യത്തിലെ ഒ വി വിജയൻ മാമ്പാട് കുഞ്ഞുകുട്ടൻ കെ ജയ കുമാരൻ സൂഫി കവിതകൾ ഒപ്പം അബ്ദുൽ ഖാലിദ് എന്നിവരുടെ രചനാശൈലി എനിക്ക് ഏറെ സ്വാധീനമായിട്ടുണ്ട് അവരുടെ എഴുത്തിൽ കാണുന്ന ഭാഷാശുദ്ധിയും ആത്മാർത്ഥതെയും എനിക്ക് സദാ പഠനമാകുന്നുണ്ട് ഓ വി വിജയൻ എന്നതുപോലെ കാഴ്ചയെയും ആന്തരികതയെയും ചേർത്ത് ചേർത്തുകൊണ്ട് ജീവിതത്തെ കടുത്ത സത്യങ്ങളായി രൂപപ്പെടുത്താൻ ആഗ്രഹമുള്ളത് അദ്ദേഹത്തിൻ്റെ വളരെയധികം ഒരു സ്വാധീനമാണ് അതുപോലെത്തന്നെ ജെ കെ ജയ കുമാർ എന്നാൽ ഭാഷയുടെ ലാളിത്യവും സംഗീതാത്മകതയും എൻ്റെ എഴുത്തിലേക്ക് എത്താൻ കാരണമായവയാണ് അതുപോലെ ഇസ്ലാമിക കൃതികളിലെയും അറബി ഉർദു കവിതകളിലെയും ദർശനികതകളും ആത്മീയതയും എൻ്റെ എഴുത്തിൽ ഉല്ലാസവും ആഴവും പകർന്നിട്ടുണ്ട് മൂന്നാമതായി ജീവിതത്തിൽ നേരിട്ട് വ്യക്തികളിൽ നിന്ന് ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അഥവാ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് പരിചയപ്പെട്ട ചില ആളുകൾ അത് അദ്ധ്യാപകരാവട്ടെ സുഹൃത്തുക്കളാവട്ടെ അവരുടെ ജീവിത ശൈലിയും ചിന്തനങ്ങളും ഭാഷാപരമായ സംവേദനങ്ങളും ഇവയൊക്കെ എൻ്റെ രചനയെ ഭംഗിയായി രൂപപ്പെടുത്തിയിട്ടുണ്ട് ചിലർക്ക് നേരിട്ടും ഒരിക്കലും എഴുത്തിൽ പങ്ക് പറഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ സ്വാധീനം തന്നെയാണ് ചില വരികൾ മൗനത്തിലുള്ള താളം പകരുന്നത് നാലാമതായി ശബ്ദം കൊണ്ട് എഴുതുന്നവർ നാടകങ്ങളും സിനിമകളും പ്രസംഗങ്ങളും കേട്ട് ഞാൻ വലിയ രീതിയിൽ പ്രചോദനം കിട്ടുന്നുണ്ട് ചില ഡയലോഗുകൾ അല്ലെങ്കിൽ ചില ആശയങ്ങൾ ഒരൊറ്റ ചിന്താതാളം എല്ലാം ഒരേ വാക്കിൽ ആത്മാവിൻ്റെ കുത്തുപത്രം പോലെയാണ് ഉദാഹരണത്തിന് മൻസൂർ അൽ സലാമി നഅ്മാൻ അലി ഖാൻ മലയാളത്തിൽ കെ ടി ജലീൽ മുഹമ്മദ് ഫൈസി എന്നിവരുടെ പ്രഭാഷണ ശൈലി എനിക്ക് എൻ്റെ ആത്മാവിൻ്റെ എഴുത്തിന് ഊർജം നല്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ എൻ്റെ എഴുത്തിന് രൂപം നൽകിയവരുടെ പാതയിലൂടെയാണ് ഞാൻ നടക്കുന്നത് അവർ ആരുമാകട്ടെ എൻ്റെ അധ്യാപക എൻ്റെ കവിതയുടെ കവികൾ ഒരു ഉപദേശം നൽകിയ സുഹൃത്ത് അല്ലെങ്കിൽ മനസ്സിൽ പതിഞ്ഞ മറ്റൊരു വരി പറയുന്ന പ്രഭാശകൻ ആ എല്ലാവരും ചേർന്നാണ് എൻ്റെ എഴുത്തുകാരൻ്റെ വ്യക്തിത്വം പണിയപ്പെട്ടത് അതിനാൽ ഓരോ എഴുത്തിലും ഞാൻ ഒരൊറ്റ മനുഷ്യൻ്റെ ശബ്ദമല്ല പല ആത്മാകളുടെയും ചിന്തകളുടെയും പ്രതിഫലം തന്നെയാണ് എനിക്കുള്ളത്